നവീന ഉപായങ്ങളെന്നു വെച്ചാൽ പണ്ടുകാലത്ത് കാളകളെ വെച്ചായിരുന്നു നമ്മൾ വയലൊക്കെ ആക്കിക്കൊണ്ടിരുന്നത് മണ്ണ് ഉഴുത് മറിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ട്രാക്ടറായി ഇപ്പോൾ ട്രാക്ടറുപയോഗിച്ചു ചെയ്താൽ കുറേ നമുക്ക് സമയം ലാഭിക്കാം പെട്ടെന്ന് പെട്ടെന്ന് സംഭവം തീരും അല്ലെങ്കിൽ വേറെ മെഷീൻസുണ്ട് പലതരത്തിലുള്ള മെഷീൻസുണ്ട് അതുവെച്ച് നമുക്ക് മണ്ണ് ഇതാക്കാം നെല്ല് വിതയ്ക്കാനാണെങ്കിൽ കൃഷി കൃഷിയിൽ നെല്ല് വിതയ്ക്കാനാണെങ്കിൽ നെല്ല് വിതയ്ക്കാണെങ്കിൽ പണ്ടിങ്ങനെ ഓരോ കുഴിയിലാക്കിയിട്ട് ഓരോന്നിലും എറിഞ്ഞെറിഞ്ഞിട്ട് പോകണം ഇതെന്നു വെച്ചാൽ ഇപ്പോൾ മെഷീൻസുണ്ട് മെഷീൻസിൻ്റെ സഹായത്തോടെ രണ്ട് റൗണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കിയാൽ നമുക്ക് ഈസിയായിട്ട് നെല്ല് വിതയ്ക്കാൻ പറ്റും പിന്നേ എല്ലാ ജോലിക്ക് അതിൻ്റേതായിട്ട് പ്രശ്നങ്ങളുണ്ട് വേറെ കാര്യം പിന്നേ ട്രാക്ടറുപയോഗിച്ചിട്ട് നമുക്ക് ചെളിയൊക്കെ ഇളക്കുക അങ്ങനത്തെ പരിപാടിയെല്ലാം ഉണ്ടാവും പിന്നെ വാഴക്കൃഷിയിലാണെങ്കിൽ പമ്പായിട്ട് പണ്ടൊക്കെ ഇങ്ങനെ ഓരോന്നിലും നമ്മളിതാക്കി കൊടുക്കണമായിരുന്നു വളങ്ങളിങ്ങനെ ഇതിപ്പോൾ പുതിയ പമ്പിങ്ങ് സിസ്റ്റമൊക്കെ വന്നതുകൊണ്ട് അതിലൂടെ നമുക്ക് വളങ്ങളടിച്ച് കൃഷിയിൻ്റെ പലതും നടത്താം താങ്ക് യു